ഹലോ ഇതാരാണ് മാഡം അ ആ പേരെന്താ പറഞ്ഞത് ഫാത്തിമയാണല്ലേ എന്താ ഇപ്പം ബുദ്ധിമുട്ട് എന്താണ് ഇന്നലെ എപ്പം വന്നെയാരുന്നു ഉച്ചക്ക് വന്നെയാരുന്നു ആ ആ ആ ആ ബുദ്ധിമുട്ടുണ്ടോ ആ ആ പനിയെന്തെങ്കിലും ഉണ്ടോ പനിക്കുന്നുണ്ടല്ലാ ആം തലയിൻ്റെ ഏത് ഭാഗത്തായിട്ടാ അടിച്ചത് വലത് ഭാഗാണോ ഇടത് സൈഡാണോ ഇടത് ഭാഗത്താണല്ലേ അവിടെന്തെങ്കിലും മുറിവോ ഇല്ലെങ്കിൽ നീര് വെച്ചിട്ടോ അങ്ങനെന്തേലും ഉണ്ടോ അ ആ നീര് വെച്ചിട്ടുണ്ടോ ആം അവിടെ ഫ്രിഡ്ജൊക്കെയുള്ള വീടല്ലേ മേഡം ആ ഫ്രിഡ്ജുള്ളതാണെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഉണ്ടാകുമല്ലൊ ഐസ് ക്യൂബൊര് തുണിയില് ആ ഒന്ന് പൊതിഞ്ഞ്കാണ്ട് ഒന്ന് തലേലൊന്ന് ആ നീര് വെച്ച സ്ഥലത്തൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്ക് കെട്ടോ ആ കുറച്ച് നേരം പ്രെസ്സേയ്ത് പിടിക്ക് പിന്നെ പനിക്കെന്തെങ്കിലും മെഡിസിൻ എന്ത് കഴിച്ചാരുന്നോ കഴിച്ചിട്ടില്ലല്ലേ പാരാസെറ്റമോളോ അങ്ങനെന്തേലും ഉണ്ടോ വീട്ടില് പാരാസെറ്റുണ്ടല്ലേ ഒരു പാരസെറ്റെടുത്ത് കഴിച്ച് നോക്കുക ആ എന്നിട്ട് കുറയുന്നില്ലെങ്കില് ഇവടെ വന്ന് കാണിക്കണം കെട്ടോ ഇതെവിടെ സ്ഥലം എവിടെയാണ് രാമനാട്ട് കരയാണല്ലേ അ ആ എന്തേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടു വന്നോളുട്ടൊ പിന്നെ വന്ന് തലക്കെന്തേലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലെ വച്ചോണ്ടിരിക്കണ്ട ഇങ്ങോട്ട് വന്നോളുട്ടോ നമ്മള് സ്കാനിങ്ങും എക്സറേയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തേലും ഉണ്ടോന്ന് നമുക്ക് നോക്കീട്ടെ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാട്ടോ പിന്നെ ഇപ്പോൾ തല ചെറുതായിട്ട് തടിപ്പുള്ള ആ സ്ഥലത്ത് ഒരൈസ് ക്യൂബ് എടുത്ത് ഒരു തുണീല് പൊതിഞ്ഞിട്ട് വെക്കണട്ടോ അങ്ങനെ നേരിട്ട് പ്രസ്സ് ചെയ്യണ്ട ഒരു തുണീല് തുണീല് കവർ ചെയ്തിട്ട് ഐസ് ക്യൂബ് കുറച്ച് നേരമൊന്ന് തലയില് പ്രസ്സ് ചെയ്ത് പിടിക്ക് കെട്ടോ ആ ആ പനി അ ആ പനീൻ്റെ ഗുളികയൊന്ന് കഴിച്ച് നോക്ക് എന്നിട്ട് കുറവില്ലെങ്കില് ഇവിടെ വന്ന് കാണിക്കണെട്ടൊ ആ ഓക്കെ ഓക്കെ